പരസ്പര വിശ്വാസത്തിന് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ വില കൽപ്പിക്കേണ്ടത് കാരണം നമ്മൾ രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു കള്ളവും ഇല്ല ഉണ്ടാവാൻ പാടുള്ളതല്ല കാരണം രണ്ട് പേർ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആളും കേട്ടിരിക്കുന്ന ആളും രണ്ടാളും ആ ഒരു ബന്ധത്തിൽ അത്രയും താൽപര്യം ഉള്ളവരായിരിക്കും നമ്മൾ ഒരാളെ പറ്റിക്കുന്നത് പോലെ സംസാരിക്കരുത് അതായത് അവരോട് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുക പറയുന്നില്ല എങ്കിൽ പറയണം എന്നില്ല എങ്കിൽ കൂടി കള്ളം പറയാതിരിക്കുക അത് പിന്നീട് അത് അവർ അറിയുമ്പോൾ അവരത് മനസ്സിലാക്കുമ്പോൾ പിന്നീട് നമ്മുടെ ആ ബന്ധം അത്ര സുഖകരകമായി പോവണമെന്നില്ല ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ബന്ധം തകർന്ന് പോയി കഴിഞ്ഞാൽ അതിനെ പിന്നെ എത്രത്തോളം കൂട്ടി യോജിപ്പിച്ചാലും അതിന് ആദ്യം ഉണ്ടായ അത്ര ആത്മാർത്ഥതയും സത്യസന്ധതയും പിന്നീട് കിട്ടണമെന്നില്ല ഇപ്പോൾ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ പോലും എത്ര കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചാലും അതിനെ ചില കഷണങ്ങൾ നമുക്ക് കിട്ടാതിരിക്കും അതുപോലെ തന്നെയാണ് എല്ലാ ബന്ധങ്ങളും